സത്യം പറഞ്ഞാൽ നമ്മുടെ കലയും നമ്മുടെ നൃത്ത രൂപങ്ങളും നമ്മുടെ കഴിവുകളുമെല്ലാം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സൊസൈറ്റിയിലും ആരും ഇതുവരെ ഒരു നിലപാടോ ഒന്നും എടുത്തിട്ടില്ല നമ്മുടെ കഴിവുകൾ നമുക്ക് വേണ്ടി നമ്മൾ വർദ്ധിപ്പിക്കുക നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുക എന്നല്ലാതെ ബാക്കി ആരും അതിനൊരു വിലയും കൽപ്പിക്കുന്നില്ല ധന ധനസഹായ സ്രോതസ്സുകൾ ആയി ആരും ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല ആർക്കും അത് അങ്ങനെ ഒരു ആഗ്രഹവുമില്ല കുട്ടികൾ കഴിവുകൾ വർദ്ധിപ്പിക്കട്ടെ അങ്ങനെ ഒരു ഏജൻസിയും ഇതുവരെ എൻ്റെ അറിവിലില്ല നമ്മുടെ കഴിവുകൾ നമുക്ക് വേണ്ടി നമ്മൾ വർദ്ധിപ്പിക്കുക എന്നല്ലാണ്ട് ആരും നമ്മുടെ സഹായത്തിനായിട്ട് വരില്ല അത് നമ്മളോട് വന്ന് ചെയ്തിട്ട് പോയിക്കോളാൻ പറയും അല്ലാതെ അവർ പൈസ തന്ന് അങ്ങനെ ആരേയും സഹായിക്കുകയും അങ്ങനെ ആരും ചെയ്തതായിട്ട് എനിക്കറിയില്ല